കേരളത്തിൽ ഇപ്പോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അതായത് ഇഷ്ടം പോലെ വനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതായത് നീണ്ടുകിടക്കുന്ന ഒരു ജ് സംസ്ഥാനമാണ് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോൾ സൈലൻറ് വാലി ഫോറസ്റ്റുകൾ ഇപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ മുത്തങ്ങ ഫോറസ്റ്റ് തോൽപ്പെട്ടി വന്യജീവി സങ്കേതം ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള തുഷാരഗിരി വാട്ടർ ഫാൾസ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഒരു സഞ്ചാരം വിനോദസഞ്ചാരകേന്ദ്രങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് അവിടെ ഇപ്പോൾ പ പല രീതിയിലുള്ള സവിശേഷതകളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും അപ്പം നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഫുള്ള് പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു ഒരു ഭൂപ്രകൃതി കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇപ്പോൾ ഇടതൂർന്ന വനങ്ങൾ കാര്യങ്ങളൊക്കെ അതായത് നമുക്ക് ഒരു സൂചി കുത്താൻ പോലും സ്ഥലമില്ലാത്ത വനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ട് നല്ല രീതിയിലുള്ള വനങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട് പല പലരീതിയിലുള്ള ജലാശയങ്ങൾ ജലാശയങ്ങൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഭാരതപ്പുഴ ഇരുവഴിഞ്ഞിപ്പുഴ അങ്ങനത്തെ പലരീതിയിലുള്ള പുഴകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലങ്ങളാണ് ഇപ്പോൾ കായലുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട് കാരണമെന്ന് വെച്ചിട്ടുണ്ടങ്കിൽ കുട്ടനാടെന്ന് പറഞ്ഞാൽ ഒരു കായലാണ് അവിടെ ഇഷ്ടംപോലെ കായലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മുടെ വള്ളംകളി നടക്കുന്ന ആലപ്പുഴ ജില്ലയിലെ കായലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ അതായത് കൊച്ചു കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം